ഞാനൊരു നല്ല തയ്യല്ക്കാരിയാണ് എനിക്ക് നല്ലപോലെ ചുരിദാര് തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനും അറിയാം ഞങ്ങളുടെ അമ്മായിയുടെ മോൾക്ക് നല്ലൊരു ചുരിദാറ് തയ്ച്ചുകൊടുത്തു നല്ല ഡിസൈന്കളൊക്കെ ചെയ്ത്കൊടുത്തു പിന്നെ അവര്ക്ക് അത് ഇഷ്ടപ്പെട്ടു അവരുടെ കൂട്ട്കാരികൾക്കും അത് തയ്ച്ചുകൊടുക്കണമെന്നു പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് നല്ലൊരു പേയ്മെന്റ് കിട്ടി പിന്നെ എനിക്ക് ഒത്തിരിയൊത്തിരി വര്ക്ക്കളെല്ലാം കിട്ടുന്നുണ്ട് എല്ലാവര്ക്കും ഇഷ്ടമാണ് എന്റെ തയ്യലുകള് പിന്നെ ഞാന് ഒരോരുത്തര്ക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാന് കൂടുതൽ കൂടുതൽ തയ്ച്ച് കൊടുക്കുന്നുണ്ട്